റയാനെ അബിനാടാ എടാ നാളെ മറ്റേ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യം നമ്മൾ എറണാകുളത്തു മറ്റേ നീ കണ്ടില്ലേ അതിനു പോകണ്ടേ അതിനു പോകണ്ടേ ആ അത് പോകണമല്ലോ നമുക്ക് രണ്ടു പേർക്കും പോകാം എടാ നമുക്ക് ഫോർച്ചുണർ വേണ്ടടാ നമുക്ക് എടാ മിനി എടാ നമ്മൾ രണ്ടു പേരല്ലേ പോകുന്നുള്ളു മിനി മിനി വല്ലതും എടുക്കാം മിനി കൂപ്പർ വല്ലതും എടുക്കാം

നമുക്ക് അപ്പോൾ ഏതാ വണ്ടി എടുക്കേണ്ടത് ഏത് സി ക്ലാസാണോ ഓ ഇ ക്ലാസോ അത് എന്നാൽ അത് എടുക്കാം ഈ കളറേതാണ് ഡാർക്ക് ഗ്രീൻ ആ കൊള്ളാം അത് മതി അത് മതി അത് മതി നമുക്ക് ഡേറ്റ് നോക്കണം പോകുന്നത് ഏത് ഓമിനിയോ അതിനകത്ത് എങ്ങനെയാണ് പോകുന്നത് അത് പകുതി ചെല്ലുമ്പോൾ വണ്ടി കത്തും അതൊന്നും വേണ്ട നമുക്ക് റിസ്കി എലമെൻറ്റൊന്നും വേണ്ട നീ നമുക്ക് വേറെ വണ്ടി പിടി എടാ നീ പറഞ്ഞ ഇതെടുത്താൽ മതി നമുക്ക് ഇ ക്ലാസ് എടുത്താൽ മതി എന്നാൽ ഒരു ഇന്നോവ എടുക്കാം എന്നാൽ എഞ്ചിൻ കത്തിപോകാൻ വഴിയില്ല ഡീസൽ അല്ലേ പിന്നെ ഇന്നോവയു കൂടെ ആയത് കൊണ്ട് ഓടികോളും വള്ളിയൊന്നും ഇല്ല പോയിട്ട് വരാം ഓ ശരി ശരി ആ എടാ നമുക്ക് ഈ വണ്ടിയി വണ്ടി നമുക്ക് ഇപ്പം അവിടെ വരെ ചെന്നാൽ പോരെ ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തേക്കാം ആ നിൻ്റെയും കൂടെ ഞാൻ എടുത്തുകൊള്ളാം കുഴപ്പം നമുക്ക് പോയിട്ട് അടിപൊ അടിച്ചുപൊളിച്ചു വരാം ജേർസിയൊക്കെ ഇരിപ്പുണ്ടോ അയ്യോ അത് മേടിക്കാം അത് നമുക്ക് നമുക്ക് ല് കോട്ടയം ലുലു കോട്ടയം ലുലുവിൽ നിന്ന് വല്ലതും മേടിക്കാം

ഓ ഹോ ഇത് നമ്മുടെ അബീൻ്റെ പെട്ടിക്കടയിൽ അവിടെ കിട്ടുമോ അ എന്നാൽ അവിടെ നിന്ന് മേടിക്കാം ഓ അതെ അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം കുറച്ച് മേടിച്ച് നമുക്ക് അവിടെ ചെന്ന് മറിച്ചു വിൽക്കാം അല്ലെങ്കിൽ ആ ലാഭമല്ലേ

ആ ശരി ശരി ശരി ശരി ആ ഓക്കെ ഓക്കെ